നമ്മുടെ ഗ്രാമം എന്ന് പറയുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഗ്രാമമാണ് കാരണം പച്ചപ്പും പുൽമേട്കളും നദികളും ചെറിയ ചെറിയ ഡാമുകളും മലനിരകളുവൊക്കെ ഉള്ളൊര് ഗ്രാമമാണ് നമ്മുടേത് അതുകൊണ്ടാണ് ഇഷ്ടവും കാണും അധികമായിട്ടുള്ള ചൂടില്ല വയനാടാണ് അവിടെ നല്ലൊരു കാലാവസ്ഥയാണ് അധികമായിട്ടുള്ള ചൂടോ ഹ്യുമിഡിറ്റിയോ കാര്യങ്ങളോ ഒന്നുവില്ല വളരെ നല്ലൊരു കാലാവസ്ഥയും

ഫെബ്രുവരി വളരെ മനോഹരമാണ് മഞ്ഞ് കൊണ്ട് പുതഞ്ഞ വയനാടിനേ കാണാൻ നിങ്ങൾക്ക് സാധിക്കും ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് വയനാടാണ് ഇഷ്ടം പിന്നെ പൊല്യൂഷൻസ് കുറവാണ് പരിശുദ്ധമായ വായു കരയല്ല് കേട്ടൊ മറ്റ് ജില്ലകളേ അപേക്ഷിച്ച് വളരെ അധികം പൊല്യൂഷൻ കുറഞ്ഞൊരു ഗ്രാമപ്രദേശമാണ് നമ്മുടേത് ടൗൺ ഏരിയയിൽ നിന്ന് കുറച്ച് വിട്ടിട്ടായതു കൊണ്ടും ചൂടും പൊലൂഷനും വൃത്തിയുള്ള അന്തരീക്ഷം ആയത് കൊണ്ടൊക്കെ തന്നെ നമുക്ക് വയനാടാണിഷ്ടം നമ്മുടെ സ്വന്തം ഗ്രാമവാണിഷ്ടം മറ്റ് പൊല്യൂഷൻ കുറവാണ് നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്നുണ്ട് മറ്റാരേയും ആശ്രയിക്കണ്ട മോശമായ വെള്ളവും പോലുള്ള കുടിക്കേണ്ട കാര്യം വരുന്നില്ല ശുദ്ധമായ വെള്ളം വായു അന്തരീക്ഷം ലഭിക്കുന്നത് കൊണ്ട് മനോഹരമായ മനോഹാരിത ഉളകുന്ന എനിക്ക് എൻ്റെ ഗ്രാമം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം